എൻ്റെ തോട്ടത്തിൽ നടാനുള്ള ചെടി ചെടികളും മറ്റും ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൃഷിഭവനുണ്ട് അവിടുന്ന് നല്ല സൈസിലുള്ള ചെടികളും മറ്റ് വിത്തുകളും ഒക്കെയായിട്ട് നമുക്ക് അവിടെ വന്നാൽ ഉടനടി ഞങ്ങളെ വാട്ട് എന്നെ വാട്സാപ്പിൽ കൂടി അറിയിപ്പിക്കും അപ്പം ഞാൻ ചെന്നിട്ട് കളക്ട് ചെയ്യും പല സൈസ് ചെടികളുണ്ട് കാരണം അവിടെ ഞാൻ നമ്മൾ ഇപ്പം നമ്മളടുത്തെ പിന്നെ വേറെ നേഴ്സറി ഉണ്ട് അവിടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓരോ സൈസ് ചെടികളും അതുപോലെ ഈ പ പയർ വിത്ത് ഓരോ പച്ചക്കറി വിത്തുകളും കിട്ടും ആ വിത്തുകളൊക്കെ അവിടെ പോയി നമുക്ക് കളക്ട് ചെയ്യാം മേടിക്കാം ഇത് ശരിക്കും നല്ല മിതമായ വിലയായിരിക്കും വിലയ്ക്കൊന്നും ഒരു ഒരിക്കലും കൂടുതൽ വില വരത്തില്ല നല്ല ചെറിയ വിലയ്ക്ക് കിട്ടും ഏത് സൈസും ഈ നഴ്സറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഈ ഈ കൃഷി ഭവൻ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ചിലപ്പം ഫ്രീ ആയിട്ട് കിട്ടും ചിലപ്പം കുറച്ച് കാശ് ചില സമയത്ത് കാശുകൾ കൊടുക്കേണ്ടി വരും പക്ഷേ എങ്കിലും നല്ല ഇപ്പം രണ്ട് ഇടത്തുനിന്ന് കിട്ടുന്നത് നല്ല ബെസ്റ്റ് നല്ല സാധനമാണ് അത് ഒരു കൂടുതൽ ഒരു പിന്നെ ഇതിൽ ചെയ്യേണ്ട നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ട അതിന് വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് വളർന്ന് നല്ല നല്ല ഫലം ചെയ്യുന്നുണ്ട് നല്ല ഷോ ആകുമ്പോൾ ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭയങ്കര നല്ല ഭംഗിയായിരിക്കും അങ്ങനെയാണ്